ആ ചേട്ടാ ഇവിടെ നല്ല എണ്ണ കിട്ടുമെന്നു പറഞ്ഞ് കോക്കൊനട്ട് ഓയില് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്

അതെയല്ലേ നമുക്ക് യുസേജ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തന്നാല്

ഓക്കേ അപ്പോൾ നമ്മള് ഇപ്പോൾ ഈ ഈ

അതെയല്ലേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത് കൊപ്രയാണോ അതോ ഉണക്കിയിട്ട് ആട്ടുകയാണോ അതോ ഇത് എങ്ങനെയാണ് ഇത്

അതെയല്ലേ ഇതിപ്പോൾ നമുക്ക് തലയിൽ തേക്കാനാണേലും അടുക്കള യുസിനും ഉപോയോഗിച്ചൂടെ ഇത് അടുക്കളയില് അടുക്കളയില് കുക്ക് ചെയ്യാനൊക്കെ ആ അതും ഓക്കേ വിളക്ക് വയ്ക്കാൻ ഇത് യൂസ് ചെയ്യില്ലാ അല്ലേ വിളക്ക് വയ്ക്കാനൊന്നും വിളക്ക് വയ്ക്കാൻ ഇത് യൂസ് ചെയ്യില്ലല്ലോ ഓക്കേ അതിനും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ

അതേയല്ലെ ഓക്കേ അപ്പോൾ ഓഹ് ആ അപ്പോൾ ഇത് എത്ര ദിവസം നിൽക്കും ഇത് കാലാവധി

ഓ ഓ അപ്പോൾ നമ്മള് ഇത് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ വേണം അതിനിപ്പോൾ എന്താ റേറ്റ് വരുന്നത് ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ

അതേയല്ലെ ആ ആ ആ ആ ആ

ഓക്കേ ഓക്കേ അപ്പോൾ നമുക്കിന്ന് ഒരു അഞ്ച് ലിറ്റർ എണ്ണ എടുക്കാം ഓക്കേ ശരി അതൊന്ന് എടുത്തോളൂ ഓക്കേ